ഞങ്ങളുടെ മാ ചെറിയ കുഞ്ഞുന്നാളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിച്ചു കൊണ്ട് തന്ന് ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളും വായിക്കാൻ ഞങ്ങളെ ശീലിപ്പിക്കുമായിരുന്നു അതുപോലെ നമ്മുടെ സഭയുടെ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ ആദ്യമായി പഠിക്കാൻ ചെറിയ ചെറിയ പുസ്തകങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വായിച്ച് വായിച്ച് ഇന്നു വായിക്കാൻ നമുക്ക് താത്പര്യം ആണ് എൻ്റെ മാതാപിതാക്കളാണ് അതിൻ്റെ

അതുപോലെ തന്നെ നമ്മുടെ വായനയ്ക്ക് നമ്മൾ കൂടുതല് പ്രാധാന്യം കൊടുത്തു കുഞ്ഞിലേ മുതലുള്ള ശീലമാണ് നമ്മളെ മുന്നോട്ടു വളര്ത്തിയതും മുന്നോട്ടു പോകുന്നതും വായന നല്ലൊരു ശീലമാണ് അതു നമുക്ക് ജീവിതത്തിന് കുറേയൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുമ്പം നമുക്ക് വായനയിലോട്ടു മുന്നോട്ടു വന്നാല് നമുക്കത് ജീവിതത്തില് ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെതന്നെ നമ്മുടെ മാതാപിതാക്കൾ എന്നും മാതാപിതാക്കളുടെ മു മുന്നേറ്റം കൊണ്ടാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ ചെറിയ ചെറിയ പ്രാര്ത്ഥനകൾ ചൊല്ലാനും അങ്ങിനെയാണ് കുഞ്ഞിലെ മുതല് ഞങ്ങളുടെ കുടുംബത്തില് മാതാപിതാക്കളാണ് പ്രാര്ത്ഥിക്കാന് പഠിപ്പിച്ചതും മുന്നോട്ടു പ്രാർത്ഥിക്കാനും പിന്നെ വായന പുസ്തകങ്ങളെല്ലാം വായിക്കും പത്രം വായിക്കും പിന്നെ നമ്മൾ ചെറിയ ചെറിയ കഥകളും നല്ല നല്ല നല്ല പുസ്തകങ്ങളും നല്ല മുന് തലമുറക്കാരുടെ പുസ്തകങ്ങളും അവരെങ്ങനെ ജീവിച്ചു അവരുടെ ജീവിതം നമുക്ക് മുന്നോട്ട് വായിച്ചു കഴിയുമ്പോള് നമുക്കതിനെയൊക്കെപറ്റി ചിന്തിക്കുമ്പോള് നമുക്ക് അവരുടെ കാര്യങ്ങള് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ രീതിയില് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ടു പോകാനായിട്ടുള്ള കഴിവ് നമുക്ക് കിട്ടുന്നുണ്ട്